തയ്യല് നെയ്ത്ത് ആ നെയ്ത്ത് അത് വളരെ എനിക്കിഷ്ടമാണ് ഞാൻ അതിന് ബഹളം വച്ച് വീട്ടില് അടികൂടി ഒരു ദിവസം ചെന്ന് തയ്യൽ മെഷൻ വാങ്ങിച്ചോണ്ട് എന്തോന്ന് വേണമെന്ന് വാശിപിടിച്ചാല് അത് കിട്ടുമെനിക്ക് തയ്യൽ മെഷീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് സ്വന്തമായിട്ട് ഞാൻ തക്യും തയ്ക്കൊക്കെ ചെയ്യും കർട്ടനൊക്കെ ഞാൻ തന്നെ അങ്ങ് സ്വന്തമായിട്ട് പിന്നെ മെത്തയ്ക്ക് ഉറയൊക്കെ ഞാന് ഇടും അപ്പോള് ഞങ്ങൾ കർട്ടൻ ഓർഡർ ചെയ്തിരിക്കുന്നു അത് ഇടുകയേ ഉള്ളു അത് ചെയ്തിട്ട് അതൊക്കെ ഇടാനുള്ള പ്ലാനിങ് ഒക്കെ ഞാനാണ് ബെറ്റി കോട്ട് പിള്ളേരുടെ പാവാട ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ തയ്ക്കും എനിക്ക് വളരെ ഇഷ്ടം തയ്യല് തയ്യൽ അറിയാം എനിക്ക് പിന്നെ കഥകളി വസ്ത്രങ്ങളൊന്നും അങ്ങനെ തയ്ച്ചിട്ടില്ല അല്ല വീട്ടില് പാവ നൈറ്റിയൊക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ വെട്ടി പഠിച്ച് തയ്ക്കും തയ്യൽ വളരെ ഹോബിയാണെനിക്ക് വളരെ ഇഷ്ടമാണെനിക്ക് തയ്യൽ പടം വരയ്ക്കാൻ അങ്ങനെ വലിയ താല്പര്യമില്ല എന്നാലും ഞാൻ ചിലപ്പോഴൊക്കെ എടുത്തു വച്ച് തുണിയില് പടം വരയ്ക്കോ തുണിയിലൊന്നും അങ്ങനെ പടം വരയ്ക്കാനൊന്നും അറിഞ്ഞുകൂടാ എനിക്ക് നോക്കി നില്ക്കെ യൂ ട്യൂബിലൊക്കെ ഇവരൊക്കെ ഓരോ സ്ത്രീകള് ചെയ്യുന്നത് കാണുമ്പോള് ആകാംക്ഷയോടെ നോക്കും പക്ഷേ ഞാൻ സ്വന്തമായിട്ടൊന്നും വരച്ചിട്ടില്ല ഇതുവരേയ്ക്കും ചെയ്തിട്ടില്ല അതൊക്കെനിക്കിഷ്ടമാണ് ഞാനിത് അങ്ങനെ പടം ഇതുവരെയ്ക്കും ഞാന് വരച്ചിട്ടില്ല വെറുതെ ഒരു എന്തെങ്കിലും കയ്യിൽ പേനയുണ്ടെങ്കിൽ ഒരു ബൊമ്മയൊക്കെ വരച്ചു ചുമ്മാ ഇങ്ങനെ കളിക്കും ഇങ്ങനെയൊക്കെ വരയ്ക്കും അല്ലാതെ അതിലൊരു പ്രാക്ടീസില്ല പാട്ടൊക്കെയാണെനിക്കിഷ്ടം തയ്ക്കാനും ഇഷ്ടമാണ് തയ്യൽ വളരെ ഇഷ്ടമാണ് ഇന്ന് ഞാൻ ഇന്നലെയും ഞാൻ ഇരുന്ന് കുറച്ചു തയ്ച്ചു തയ്ക്കാനൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നെ കണ്ണ് കണ്ടുകൂടാ സൂചി കൊരുക്കാൻ ഇവിടെ വച്ചാല് ഈ ജനല് തുറന്നാല് കാണാം തയ്ക്കും പക്ഷേ എൻ്റെ ഹസ്ബൻഡ് തയ്യല്ക്കാരനാണ് അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പഠിക്കാൻ കാരണം പറഞ്ഞൊക്കെ തന്നെനിക്ക് തയ്യല് എൻ്റെ ഹസ്ബൻറ്റിന് വളരെ ഇഷ്ടമാണ് തയ്യല് തയ്യൽക്കാരനുമാണ് അതാണ് ജോലി